ഹലോ അതേല്ലോ അതേല്ലോ ഞാൻ വീട്ടിലില്ല രണ്ടു ദിവസം കഴിഞ്ഞേ എത്തുകയുള്ളല്ലൊ നമ്മുടെ അയൽപക്കത്ത് ഒരു വീടുണ്ട് അവിടെ കൊടുത്തേക്കാമോ അതെ അതെ അല്ലെ അപ്പം ഞാൻ അതിന് ഇനി എന്ത് ചെയ്യും ഞാനില്ലല്ലോ സ്ഥലത്തെ രണ്ട് മൂന്ന് ദിവസം പിടിക്കും കഴിഞ്ഞേ എത്തുകയുള്ളു സ്ഥലത്തില്ല ങാ ഞാനൊരു മൂന്ന് ദിവസം കഴിഞ്ഞേ എത്തുകയുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ആളെന്നു പറയുമ്പോൾ അടുത്ത് ഏ വീ വീട്ടിലാരുമില്ലല്ലോ നമുക്കിത് എത്ര ദിവസം അന്നേരം കയ്യിൽ വയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് അത് രണ്ടു ദിവസത്തിന് ഉള്ളിലോ രണ്ടു ദിവസത്തിന് ഉള്ളിൽ ഏ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ നമ്മുടെ അനിയൻ വീട്ടിലുണ്ടോന്ന് ഒന്ന് വിളിച്ചു നോക്കട്ടെ ഞാൻ അവൻ തിരക്കുള്ള ആളാണ് അതുകൊണ്ട് കാണുമോന്നറിയില്ല ഞാനൊന്നു വിളിച്ചു നോക്കാം ആ അവൻ അവനെയല്ലാതെ ഇപ്പം വേറെ വിളിച്ചിട്ട് ചോദിക്കാൻ പറ്റിയ ആളില്ല അപ്പം വേറെയാരും നമ്മുടെ അടുത്ത് പറ്റുന്നവരില്ലല്ലോ മ്മ് ആ ഇതിൻ്റെ മ്മ് പിന്നെ പൈസയൊക്കെ അടക്കണ്ടതില്ലേ ആം നമുക്ക് ഞാൻ വിളിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് അവനോട് ചോദിക്കട്ടെ അവിടെ ഉണ്ടോ ഇല്ലയോന്ന് കേട്ടോ എന്നിട്ട് ഞാൻ അല്ല അത് ഞാൻ സല സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് പറ്റിപോയത് ങാ ഞാൻ ഞാൻ എമർജൻസി ആയിട്ട് ഒര് വഴിവരെ വന്നതായിരുന്നു ഒരു രണ്ട് ദിവസം കഴിഞ്ഞേ എത്തുകയുള്ളൂ താനും ആ ഞാൻ ഞാൻ നോ നോക്കിയിട്ട് വിളിക്കാം കേട്ടോ

ആം അല്ല ശരി ഞാൻ അവനെയൊന്ന് വിളിക്കട്ടെ വിളിച്ചിട്ട് ആ എത്തു എത്തും എത്തും ആ എന്നാൽ ആ എന്നാൽ ശരി അങ്ങനെ ചെയ്യാം ഓക്കേ